ഞമ്മള് ആശുത്രിന്ന് വെച്ചാൽ മാനന്തവാടി മെഡിക്കൽ കോളേജായിട്ടാണ് ഇള്ളത് അവിടെ ഇപ്പോൾ ഡോക്ടറ് മരുന്നൊക്കെ എഴുതിത്തന്ന കഴിഞ്ഞാൽ ഞമ്മള് വാങ്ങാൻ പോവുകയാണെങ്കിൽ ക്യു നിൽക്കും ക്യു നിന്ന് കുറെ നേരം ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറോളം അവിടെ ക്യു നിന്ന് കഴിഞ്ഞാല് അവരെഴുതി തരുന്നതെന്തെന്ന് വെച്ചാല് പുറത്ത് വാങ്ങിക്കുക ഇവിടെയില്ലന്നാണ് പറയുന്നത് അത്യാവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ പറയുക പിന്നെ അതേപോലെതന്നെ കൂടുതലായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് മരുന്നൊന്നും അങ്ങത്തൊന്നും ഇല്ലാന്ന് ഉണ്ടായിട്ട് കോഴിക്കോട് കൊണ്ടു പൊക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പൊയ്ക്കോളാൻ പറയും ഒരു ദിവസത്തേക്ക് എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ അവര്ക്ക് അവരെ മരിക്കുന്ന മരിക്കുന്ന സ്റ്റേജ് വരെ പോവും അങ്ങനെ പൊതുവെ കുറെ പേര് മരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഭക്ഷണമൊന്നും അങ്ങനെ മര്യാദയ്ക്ക് കിട്ടില്ല ചികിത്സ ചിലവ് തോളിലൊട്ടിട്ട് നമ്മളെ മരുന്നൊക്കെ പുറത്തുന്ന് വാങ്ങണ്ട അവസ്ഥയാണുള്ളത് ഗവൺമെൻറ്റ് ആശുത്രിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതേപോലതന്നെ ക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ക്യു ആണ് നമ്മള് വഴി മുതലവിടെ ക്യു നിൽക്കുവാണ് മരുന്ന് വാങ്ങാനൊക്കെ